ആ പറഞ്ഞോ ആ അതേല്ലോ ആ അതെ ആ ആ ആ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഡേറ്റ് ഇനി വരുന്ന മാസം ഒരു പതിനഞ്ചാം തീയതിയിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്

രണ്ട് മൂന്നു ദിവസത്തെ ആ മൂന്നാറുണ്ട് കൊടൈക്കനാൽ ഊട്ടിയൊക്കെ കുറേ പേർ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഫിക്സ് ചെയ്തില്ല മൂന്നാറോ തേക്കടി അവിടെയൊക്കെ കാണാൻ പോകണമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്

കാറ്റഗറീ എന്നു പറയുമ്പം ഒരുമാതിരി മെച്ചപ്പെട്ടതായിരിക്കണം കുട്ടികളും പ്രായമായവരുമൊക്കെ ഉണ്ട് ഇപ്പം എല്ലാവർക്കും പറ്റിയ ഫുഡ് ആ താമസസൗകര്യവും എല്ലാം കൂടി കൂട്ടി ആ ആ ആ അത് കുഴപ്പമില്ല ആ അല്ല കിംഗ് സൈസ് തന്നെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഞങ്ങളൊരു മൂന്ന് നാല് ദിവസത്തിൽ കൂടുതൽ തങ്ങുന്നില്ല ആക്ടിവിറ്റീസ് എന്നു പറഞ്ഞാൽ നമുക്ക് കിടക്കാനുള്ള സൗകര്യം ഫുഡ്ഡും മാത്രം നമ്മൾ നോക്കുന്നുള്ളിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇല്ല ഓ അതിനൊന്നും ഞങ്ങൾ നോക്കുന്നില്ല ആ ചാർജാകുമല്ലേ ഇല്ല അതൊന്നും നോക്കുന്നില്ല ആ ട്രക്കിങ്ങൊക്കെയുണ്ടെങ്കിൽ അതിനൊക്കെ പ്രത്യേക ചാർജാണോ അതോ ഓ ഒരാൾക്കോ അതോ നമ്മുടെ ഒരു ഇതാളിനോ ഓ അത്രയാകുമോ ഓ ഓ ആ വിട്ടേക്ക് ഈ ആനയും കടുവയൊക്കെ ഇറങ്ങുന്നതു കൊണ്ട് ആകെയൊരു പേടിയുണ്ട്

ഞാനെല്ലാവരോടും കൂടിയൊന്ന് അഭിപ്രായം ചോദിച്ച് നോക്കട്ടെ എങ്ങനെയാണെന്ന് ശരി എനിക്ക് തന്നെയൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലല്ലോ

പിന്നെ ആ അതെ എന്തു ചെയ്യുന്നു ആയോ ആ ഹലോ ക്ലോസായോ അതോ ഇ ല്ല ആ ഞാൻ ആ അതു തന്നെ ആ രണ്ടാം തീയതിത്തേന് ബുക്ക് ചെയ്തേരെ